ട്രെയിലുകളിൽ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ടെന്ന് ഉറപ്പാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ബൈക്കിംഗ് ഗിയറുകളോ ഉപകരണങ്ങളോ എന്തൊക്കെയാണ് അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഒന്ന് ഹെൽമെറ്റ് മുഖ്യമായിട്ടും പ്രധാനമായിട്ടും ഏതൊരു സാധാരണക്കാരനും ബൈക്ക് ഓടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഹെൽമെറ്റ് പിന്നെ വരുമ്പം അതിന് റൈഡിംഗ് ജാക്കറ്റുകളും റൈഡിംഗ് ഗിയറുകളും പിന്നെ ഷൂസ് ബൂട്ട്സ് ഗ്ലൗസ് അങ്ങനെ പല തരത്തിലുള്ള റൈഡിംഗ് ഗിയറുകളും ഉപയോഗിക്കാറുണ്ട് സാധാരണ തരത്തിൽ പിന്നെ റോഡിൽ ബൈക്കിലെ മെക്കാനിക്കൽ പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാം അതിപ്പം അങ്ങനെ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പരമാവധി ബൈക്ക് ഉപയോഗിക്കുന്ന രീതി കുറച്ചൂടെ വൃത്തിയായിട്ടും അത് ഹാ റാഷ് ഡ്രൈവിംഗ് ഒഴിവാക്കാനും ഒക്കെ ശ്രമിച്ചാൽ തന്നെ ബൈക്കുകൾക്കുണ്ടാവുന്ന പല മെക്കാനിക്കൽ പ്രശ്നങ്ങളും ഒഴിവായി കിട്ടുന്നതാണ് അപ്പം പിന്നെ എന്തേലും ഒക്കെ ഇഷ്യൂസ് ഉണ്ടായാൽ പരമാവധി ഒരു മെക്കാനിക്കൽ നന്നായിട്ട് അറിയാവുന്ന ഒരു മെക്കാനിക്കലിനെ കൊണ്ട് തന്നെ നന്നാക്കിക്കയായിരിക്കും ഏറ്റവും നല്ലത് കാരണം റോഡിൽ നമ്മൾ പല സ്ഥലത്തിൽ ഓടിക്കുന്ന ഒരു വണ്ടിയാണ് ഇപ്പം ഇപ്പം മുതൽ ഗട്ടർ ഉള്ള റോഡുകളിൽ ആയിരിക്കാം നല്ല റോഡിൽ ആയിരിക്കാം സ്പീഡിൽ ഓടിക്കുന്ന ആയിരിക്കാം പതുക്ക ഓടിക്കുന്ന ആയിരിക്കാം പല തരത്തിൽ ഓടിക്കുന്ന ഒരു ബൈക്ക് ആയതുകൊണ്ട് ഒരു വണ്ടി ആയതുകൊണ്ടും അത് ഒരു മെക്കാനിക്കിനെ കൊണ്ട് നന്നാക്കുന്നത് ആയിരിക്കും ഏറ്റവും ഉചിതം കാരണം അത് നമ്മൾ നന്നാക്കി എന്തേലും പിഴവ് സംഭവിച്ചാൽ നമ്മുടെ ജീവിതത്തെ വരെ ബാധിക്കാവുന്ന ഒരു സംഭവമാണ് ബൈക്ക് ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പിന്നെ ചോദിച്ചിരുന്ന ഒരു യാത്രയിൽ ഒരു യാത്രയിൽ നിങ്ങൾക്ക് സൈക്കിൾ തകരാർ സംഭവിച്ചിട്ടുണ്ടോ ഉണ്ട് പലപ്പോഴും സംഭവിച്ചിട്ട് ഞാൻ പണ്ട് മുതൽ സൈക്കിൾ ഓടിക്കുന്ന ഒരു ആളാണ് അപ്പം ഞാൻ ഓടിക്കുമ്പം പലപ്പോഴും ചെയിൻ ഊരിപ്പോവുകയും ചെയിൻ പൊട്ടിപ്പോവുകയും ടയറ് പഞ്ചറാവുകയും ആ അങ്ങനെ പല സിറ്റുവേഷൻസിലൂടെ ഞാൻ പോയിട്ടുണ്ട് ഞാൻ ദൂരെ ഒക്കെ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് സൈക്കിൾ കൊണ്ട് ഇപ്പം ബൈക്കൊക്കെ കിട്ടിയത് കൊണ്ട് പിന്നെ സൈക്കിൾ യാത്ര കുറവാണ് ഇല്ല ഇപ്പം കുറഞ്ഞൂന്നല്ല തീരെ ഇല്ലാന്ന് തന്നെ വേണം പറയാൻ അപ്പോൾ പലപ്പോഴും എനിക്ക് അങ്ങനത്തെ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട് സൈക്കിൾ ഓടിച്ചോണ്ട് പോയാൽ ചില ആൾക്കൂട്ടം ഒന്നും ഇല്ലാത്ത പ്രദേശങ്ങളിലൊക്കെ വണ്ടി നിന്നു സൈക്കിള് ഇങ്ങനെ പ്രശ്നം വന്ന് മെക്കാനിക്കൽ ഇഷ്യൂ വന്ന് നിന്ന് പോവുകയും അവിടുന്ന് കുറെ ദൂരം നടന്ന് പോയി അത് നന്നാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കക്കെ സംഭവിച്ചിട്ടിണ്ട് പിന്നെ കൂട്ടുകാരൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ അവർ അതിനനുസരിച്ച് അതുപോലെ ഞങ്ങൾ എല്ലാവരും കൂടി അതിനനുസരിച്ച് ആവശ്യമായ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആണെങ്കിൽ നമ്മൾ ചെയ്തിട്ടും ഉണ്ട്